ഇവിടെ ഇപ്പോൾ വിനോദസഞ്ചാരികൾ അറിയാൻ ആഗ്രഹിക്കുന്ന പരമ്പരാഗതമായ ഗെയിം സ്പോർട്സ് ഉണ്ടോന്ന് ഒക്കെ ചോദിക്കുമ്പോൾ പൊതുവെ ഈ വിനോദസഞ്ചാരികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ അമേരിക്കകാര് അവരൊക്കെയാണ് നമുക്കിവിടെ പൊതുവെ വരാറ് അമേരിക്കക്കാര് അങ്ങനെ കുറെ വെള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് വരിക അപ്പം അവർക്കൊക്കെയാണല്ലോ നമ്മള് കാണാത്തത് കാണുമ്പം ഭയങ്കര ഒക്കെ ഒരു രസം ഒക്കെ തോന്നുന്നത് അപ്പം അവരാണ് വരിക പിന്നെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടാണ് നമ്മള് ഇങ്ങനത്തെ ഗേമുകള് സ്പോർട്സ് അതായത് ഫുട്ബോള് അതായത് അവരിപ്പോൾ മഡ് ഫുട്ബോൾ അങ്ങനൊക്കെയുണ്ടാവില്ലേ അതായത് വയലിൽ കൂടിയുള്ള മഡ് ഫുട്ബോള് അങ്ങനെ ഉള്ളതൊന്നും അവര് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ടൂർണമെന്റുകൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഞ്ചാബിലെ ഗുസ്തി മഹാരാഷ്ട്രയിലെ ലെജിമ് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ടൊക്കെ കാളയെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ജെല്ലിക്കെട്ട് അതൊക്കെ കാണാൻ ഒരുപാട് പേര് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭയങ്കര ഒരു സംഭവമുള്ള പരിപാടിയാണ് ഈ ജെല്ലിക്കെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് കുറെ കാളകളുണ്ടാവും അപ്പോൾ അവരങ്ങനെ കുറെ കാളകൾ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ ഓട്ടമത്സരം പോലെയുള്ള ഒരു സംഭവാണ് അതാണ് ജെല്ലിക്കെട്ട് പിന്നെ ആസ്സാമിലെ ദോഖീൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ